ഈ മെയിനായിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരം അതായത് നല്ല രീതിയില് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിലും എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമാ യിട്ട് ഓടുന്ന ഒരു ആളാണെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയില് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതായത് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഡെയിലി ഓടുന്നതും വർക്ഔട്ടുകള് ചെയ്യുന്നതും അപ്പോൾ നല്ല രീതിയില് ഓടു ഒക്കെയാണെങ്കില് നമുക്ക് ഈ കൊളസ്ട്രോള് ഷുഗറ് പ്രഷറ് അങ്ങനത്തെ അസുഖങ്ങളൊന്നും നമുക്ക് വരാണ്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം അപ്പം നമ്മള് കുടുതലും ജിമ്മുകളില് പോകും പോകാൻ പോകണ്ടത് എന്നല്ല പോകണം പക്ഷെ അത്യാവശ്യം നല്ല രീതിയില് വീട്ടില് ചെയ്യാവുന്ന രീതികള് ഈ ഓട ഓട്ടല് എന്താ പറയുക ഓടാൻ വേണ്ടി പോകുക രാവിലെ ഓടണം പിന്നെ നമ്മള് ഷട്ടിൽ ബാറ്റ് ഫുട്ബോള് ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുക ആണെങ്കില് നമുക്ക് നല്ല ആരോഗ്യ ആരോഗ്യമുള്ളമരായിട്ട് ജീവിക്കാം